വീടിൻ്റെ സമീപത്ത് ഒരു നല്ല അടിപൊളി കടൽ തീരമുണ്ട് തലശ്ശേരി കടൽ എന്നു പറയും തലശ്ശേരി കടൽപ്പുറം എന്നു പറയും അവിടെയെന്ന് വച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾ വരുന്ന സമയം വൈകുന്നേരങ്ങളിലാണ് ഫ്രീ ആയിട്ട് കുറച്ച് കടൽ കാറ്റെല്ലാം ഏറ്റിട്ട് അവരേതായാലും സ്വസ്ഥതയിലിരിക്കാൻ ലവേർസ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഫ്രണ്ട്സുകൾ അവരെല്ലാം ഇങ്ങനെ കൂട്ടമായിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിയോട് കൂടി എത്തും അതിൻ്റെ അരികത്തെല്ലാം ഓരോ ചൂടോടു കൂടിയ ചായയും പരിപ്പ് വട അങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിക്കും പിന്നെ അതുപോലെ തന്നെ ലീവുള്ള സമയങ്ങളിൽ ഞായറാഴ്ചകളിൽ അവധി ദിവസങ്ങളിൽ പിന്നതുപോലെതന്നെ സ്കൂളുകളിൽ നിന്ന് ക്യാമ്പായിട്ട് ടൂറിനു വരുന്ന സമയത്ത് അങ്ങനെയെല്ലാമാണ് ആ ആ അവിടെ അതിൻ്റെ അരികത്തൊരു പാർക്കുണ്ട് കടൽ തീരത്തിൻ്റെ അരികത്ത് ആ പാർക്കിൽ കുറേ ആൾ വന്നിരിക്കും പിന്നെ അതുപോലെതന്നെ നല്ല അടിപൊളി കടൽപ്പാലമുണ്ട് തലശ്ശേരി കടൽപ്പാലമെന്ന് പറഞ്ഞിട്ട് അവിടെയും ഇതുപോലെ കുറേ വിനോദ സഞ്ചാരികൾ വന്നിരിക്കാറുണ്ട് പിന്നെ നമുക്ക് അരികത്തെന്ന് വച്ചു കഴിഞ്ഞാൽ ഒരു സ്മാരകം കൂത്തുപറമ്പ് സ്മാരകമാണ് ഈ കൂത്തുപറമ്പ് സ്മാരകത്തിൽ ആളുകൾ കൂടുന്ന സമയമെന്ന് വച്ച് കഴിഞ്ഞാൽ രക്തസാക്ഷി ദിനം അതുപോലെയുള്ള ദിനങ്ങളിലാണ് രക്തസാക്ഷി ദിനം അങ്ങനത്തെ സ്മാരകം മരിച്ച ആളെ മരിച്ച ദിനത്തിലെല്ലാം ആണ് അവിടെ കൂടുതൽ ആൾ ഉണ്ടാകലുള്ളൂ പിന്നെ മറ്റൊന്ന് എന്നു വച്ചാൽ മത കേന്ദ്രമാണ് അമ്പലത്തിലെല്ലാം എന്നു വച്ച് കഴിഞ്ഞാൽ അയ്യപ്പ ദർശനത്തിനായിട്ട് വരുന്ന സമയത്തെല്ലാം നല്ല തിരക്കനുഭവിക്കപ്പെടാറുണ്ട് അതുപോലെ മണ്ഡല കാലങ്ങളിൽ മണ്ഡലകാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളെ അമ്പലങ്ങളിൽ വരുന്നത് പിന്നെ അതുപോലെതന്നെ കുംഭ മാസങ്ങളിൽ ധനു മാസങ്ങളിൽ ഏറ്റവും കുറവെന്ന് പറയുന്നത് കർക്കിടക മാസത്തിലാണ് ക്ഷേത്ര ദർശനം വളരെ കുറവായിരിക്കും ക്ഷേത്രങ്ങളിൽ പൂജകളെല്ലാം കുറവായിരിക്കും ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവുമായിട്ട് ദീപാരാധനയും അതിനോടനുബന്ധിച്ച് ചടങ്ങുകളും കാണണ്ടീട്ട് ഭക്ത ജനങ്ങളെ വരുത്താറ് വരാറുണ്ട്